ഹലോ ഭഗവതി ടെക്സ്ടൈൽസ് ആ അതെ ആര് ഇപ്പം സംസാരിക്കുന്നത് ആ ആ പറ ആ പറഞ്ഞോളു മാഡം പറഞ്ഞോളൂ ആ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണം എത്ര പീസ് വേണം ഇപ്പോൾ അത് പർപ്പിൾ കളർ വന്നിട്ടുണ്ട് പീകോക്ക് കളർ വന്നിട്ടുണ്ട് പിന്നെ ബ്രൗണ് ഉണ്ട് ഗ്രേ ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ മെറൂൺ കളർ ഉണ്ട് ഗ്രീൻ ഉണ്ട് കുറേ ഇപ്പം പുതിയതായിട്ട് വന്നതാന്ന് ആറ് മീറ്റർ ഉണ്ട് മാഡം ആ ഉണ്ട് ഉണ്ട് ഉണ്ട് അല്ല മാഡത്തിന് അത് പ്ലെയിൻ ബ്ലൗസ് പ്ലെയ്നിലേക്ക് ഇത് വന്ന് ബ്ലൗസാണ് മാഡത്തിന് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ടാക്കിയിട്ട് എടുക്കാം അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് വന്ന് പീസ് കൂടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് വേറെ പൈസ കൊടുത്തിട്ട് പീസും വാങ്ങാം അത് സെയിം വേ ഇതാണ് അത് തന്നെ റേറ്റ് ഇപ്പം പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് മുതൽ അങ്ങോട്ട് നല്ല ഏത് റേറ്റിൻ്റെ വേണമെങ്കിലും വരുന്നുണ്ട് മേഡത്തിന് എത്രയാണ് വേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞോളു

ആ ആ ആ റേഞ്ചിൽ വരുന്നത് അത് ഒരേ കളറ് വേണ്ടത് അല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ വേണ്ടത് നിങ്ങൾക്ക് ആ ഡ്രസ് കോഡ് ആക്കാനായിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഒരു അഞ്ച് പീസല്ലേ മാം ഇത് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുമ്പേ പറയണം എന്തെന്നാൽ ഓർഡർ ആക്കിയിട്ട് ബെര്ത്തിക്കണല്ലേ അതെയോ ആ അത് ഇന്ന് തന്നെ ആ ആ നിങ്ങൾക്ക് കടമന പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് തന്നെ അല്ലേ നിങ്ങൾ അത് ഇതാക്കിയിട്ട് അതിൻ്റെ ഇതൊന്നും കളയണ്ട ഇന്ന് നിങ്ങൾ വന്നെങ്കിലും ഞാൻ തരാം അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്തെങ്കിൽ നല്ലത് എന്ത് വന്നെങ്കിൽ അപ്പോൾ കൊണ്ടോണ്ടാല്ലേ നിങ്ങൾക്ക് ആ ഓക്കെ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ അയക്കാം ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു ആ താങ്ക് യു